അതേലൊ

ആണോ ആണോ ഇന്റർസ്റ് എന്ന് പറയുമ്പോൾ പത്രണ്ടും ഒമ്പത് വരെക്കെയാണ് ഇന്റെരെസ്റ്റിന്ന് പറയുന്നത് അത് ഇപ്പം അമ്പത് ലക്ഷമാണെങ്കിലും അറുപത് അങ്ങനെയൊക്കെയാണ് വരുന്നത് ഫാം തുടങ്ങാൻ സ്ഥലത്തിൻ്റെ പേപ്പേഴ്സ് വേണം അതെല്ലാം കറക്റ്റ് ചെയ്യണം പിന്നെ നിങ്ങള് രേഖകള് ആധാരമാണെങ്കിലും എന്തിനുവേണ്ടിയ എടുക്കുന്നത് എന്നുള്ള അപേക്ഷയൊക്കെ കൊടുക്കണം

പാൻകാർഡിന്റെ ആവശ്യമുണ്ട് ഗോൾഡ് ലോൺ എടുക്കണമെങ്കില് ഞങ്ങള് ഗോൾഡ് അതിനും പാൻകാർഡിന്റെ ആവശ്യം പിന്നെ നിങ്ങൾക്ക് ആധാറിന്റെ ആധാർ കാർഡും അതിന്റെ അതൊക്കെ വേണ്ടിവരും പവന് ഇപ്പത്തെ വില അനുസരിച്ചിട്ട് ഇപ്പത്തെ വില അനുസരിച്ചിട്ടായിരിക്കും കിട്ടുക അതെ കിട്ടും ഇരുപത്തിനാലില് കൂടുതല് കിട്ടും

കാർഷിക ലോണാണെങ്കില് ഇന്ട്രെസ്റ് അവര് പന്ത്രണ്ട് പതിമൂന്നൊക്കെ വരും ബിസിനസ് ലോണാണെങ്കില് അതിനനുസരിച്ചിട്ട് ഓരോ ഇതിനനുസരിച്ചിട്ട് ആയിരിക്കും അതിൻ്റെ ഇന്റെസ്റ്റ് വരുന്നത്

അ നിങ്ങള് ഒരു നാളെ വന്നോളൂ